ആ ഹലോ ഹായ് എനിക്ക് നിങ്ങളുടെ സൂവിനേക്കുറിച്ച് കുറച്ച് സംശയങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ട് അതായിരുന്നു നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ സൂവിലുള്ള ആനിമൽസിനെന്തേലും അസുഖം വന്നാൽ ടേക്ക് കേയർ ചെയ്യുന്നതും അവരുടെ ജീവൻ സംരക്ഷിക്കുന്നതും ഓക്കെ ഇവർക്കെന്തൊക്കെ സേഫ്റ്റി എക്യൂപ്മെൻട്സ്സാണ് ഈ ആ അനിമൽസിനെ ഹാൻഡിൽ ചെയ്യാൻ സൂവിലാവശ്യമുള്ളത് അതെ അതെ ഓക്കെ അതുപോലെ തന്നെ എനിക്കൊരു ഡൗട്ടുങ്കൂടെയുണ്ടേ നമുക്കിപ്പൊരു സൂവിൽ വെച്ച് ഒരാനിമൽനെ അല്ലെങ്കിൽ ഒരു ബേഡിനെ നഷ്ടപ്പെട്ട് പോവാണ് ലോസ്റ്റായി പോവാണെങ്കിൽ ആ സിറ്റുവേഷൻ നിങ്ങളെങ്ങനെ ഹാൻഡിൽ ചെയ്യും അതിനെയെങ്ങനെ കണ്ടു പിടിക്കും ഓക്കെ ആ ഇതക്കെയാരുന്നെൻ്റെ ഡൗട്ട് ഓക്കെ താങ്ക് യൂ സോ മച്ച് ആ ക്ലീയറായിട്ടുണ്ട് ഇല്ല ഇല്ല ഓക്കെ താങ്ക് യൂ ബൈ